അതെ എന്ത് തുടങ്ങാനാണ് എന്തിനാണ് ലോണ് ഓക്കേ എത്ര ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്നത് ലോണിനായിട്ട് ഓക്കേ എന്തെങ്കിലും പ്രോഫിറ്റ് നമ്മൾ ഇവിടെ വെച്ചിട്ട് ആണ് നമ്മൾ ലോണ് കൊടുക്കുക അപ്പോൾ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്താണ് ഇവിടെ പിന്നെ സ്ഥലത്തിൻ്റെ ആധാരം പണയം വെക്കുക അങ്ങനെ എന്തെങ്കിലും എന്തേലും വെച്ചിട്ടാണോ അതോ സ്ഥലത്തിൻ്റെ ഇത് വെയ്ക്കാനോ അല്ലാതെ എക്സ്ട്രാ വേറെ ബിസിനസ് സംബന്ധമായിട്ട് ലോൺ വേറെ ഉണ്ട് എങ്ങനെ ഉള്ള ലോണാണ് ഉദ്ദേശിക്കുന്നത്

ആ ഇൻട്രസ്റ്റ് ഇപ്പം ബിസിനസിൽ ഇപ്പോൾ സ്വയം തൊഴിലിന് ഇപ്പോൾ ഇൻട്രസ്റ്റ് കുറവാണ് നാല് നാല് ശതമാനം തൊട്ട് പതിനൊന്ന് ശതമാനം വരെ ഉണ്ട് ഏറ്റവും കുറഞ്ഞത് നാല് ശതമാനമാണ് ആ മറ്റേതിന് സെയിം പ്രോസസ്സ് തന്നെയാണ് ഇപ്പം അപ്പം നമ്മൾ ബിസിനസ്സ് ആകുമ്പോൾ നമുക്ക് കൂടുതൽ എമൗണ്ട് നമുക്ക് കിട്ടും മറ്റേത് ആകുമ്പോൾ നമ്മുടെ എന്താണോ പ്രോഫിറ്റ് എന്ത് സ്ഥലത്താണ് അതിൻ്റെ വേല്യു അനുസരിച്ചായിരിക്കും നമ്മൾ ലോൺ അപ്രൂവ് ചെയ്യുന്നത് അത് നമുക്ക് എത്ര വേണമെങ്കിൽ കിട്ടും നിങ്ങൾ ഏറ്റവും ഏറ്റവും കൂടുതൽ എത്ര നമ്മൾ എന്താണ് അതിൻ്റെ വെക്കുന്നത് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ മുഴുവൻ പ്ലാനും കാര്യങ്ങളും ഒക്കെ വെക്കണം എന്താണ് എവിടെയാണ് തുടങ്ങുന്നത് അതിൻ്റെ പ്രൂഫും രേഖകളൊക്കെ വച്ചാൽ എത്ര എമൗണ്ട് ആണ് വേണ്ടത് അത്രയും എമൗണ്ട് കിട്ടും അപ്പോൾ പിന്നെ നിങ്ങളുടെ അപ്പം ആധാർ കാർഡ് വേണം പിന്നെ നമ്മൾ എന്താണ് തൊഴിൽ എടുക്കുന്നത് അതിൻ്റെ അപ്രൂവ് രേഖ വേണം അപ്രൂവായിട്ടുള്ള അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാകുമല്ലോ പിന്നെ ബിൽഡിങ്ങിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം പിന്നെ എന്താണോ തുടങ്ങുന്നത് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇതാക്കിയിട്ടുള്ള ഒരു ഇത് വേണം കുറച്ച് മുദ്ര പേപ്പറിലൊക്കെ എഴുതിയിട്ട് കൊണ്ടുവന്നാൽ മതി പിന്നെ ബാങ്കിൽ കുറച്ച് പ്രൊസീജ്യർ ഉണ്ട് അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അപ്രൂവ് ചെയ്യൂള്ളു അത് ഒരൂ ആ വൺ ആൻഡ് ഹാഫ് മന്ത് ഒന്നര മാസം കൊണ്ട് ഏകദേശം പെട്ടന്ന് നിങ്ങൾ രേഖകളൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ നമ്മൾ അത്രയും സ്പീഡിൽ അക്കിത്തരും പിന്നെ അത് നമ്മൾ ഓരോ മന്തിലി എമൗണ്ട് എത്ര അടയ്ക്കുന്നു എന്നുള്ള ഡിപ്പൻ്റ് ചെയ്ത് ഇരിക്കും ഇപ്പം നിങ്ങൾക്ക് കുടുതൽ അടയ്ക്കാൻ പറ്റികയാണെങ്കിൽ ക്ലോസ് ചെയ്യാൻ പാകത്തിന് വേഗം വേഗം അടച്ച് തീർക്കാൻ പറ്റികയാണെങ്കിൽ നമ്മളിപ്പം പത്ത് ലക്ഷം രൂപയാണ് എടുക്കുന്നതെങ്കിൽ ഇരുപത്തി അയ്യായിരം എങ്കിലും മന്തിലി നമ്മൾ പിന്നെ ബാങ്കിലോട്ട് അടയ്ക്കണം ഇപ്പം അതിനെ കൂടുതൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ലക്ഷം രൂപ അടയ്ക്കുകയാണെങ്കിൽ നാലു മാസത്തെ പൈസ ഒരുമിച്ച് അവിടേയ്ക്ക് ആകുമല്ലോ അപ്പോൾ നമുക്ക് പെട്ടന്ന് ലോൺ കബ്ലീറ്റ് ആവാൻ പറ്റും ഏറ്റവും ചുരുങ്ങിയത് ഇരുപത്തി അയ്യായിരം എങ്കിലും അടയ്ക്കണം പത്ത് ലക്ഷം രൂപയാണ് എടുക്കുന്നതെങ്കിൽ ഇരുപത്തി അയ്യായിരം വച്ച് അടയ്ക്കണം

ഓക്കേ എന്നാൽ ശരി